ഇപ്പോൾ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചെവിയിൽ വയ്ക്കുന്ന ഒരു സാധനം ആണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ പാട്ട് കേൾക്കാനും ഇപ്പോൾ കോൾ വിളിക്കാനും ഒക്കെ ഹെഡ്ഫോൺ ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെവിയിലേക്ക് ഉള്ളിലേക്ക് കയറ്റിവെക്കുന്നതും ഉണ്ട് അതായത് ഇൻ ഇയറും ഉണ്ട് ഔട്ടർ ഇയറും ഉണ്ട് ഇപ്പം രണ്ടും കുഴപ്പം ഇല്ലാത്ത രീതിയിലാണ് ഉള്ളത് അപ്പം ഇൻ ഇയർ ആണെങ്കിൽ നമുക്ക് വേറെ നോയിസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതായത് ബ്ലൂടൂത്തിൻ്റെ ഉണ്ട് ഇല്ലെങ്കിൽ വയേഡ് ഹെഡ്സെറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെവിയിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് വേദനയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്ക ഇതിൽ ഉണ്ട് പിന്നെ പിന്നെ നമ്മളിപ്പം എന്തെങ്കിലും ഇപ്പം വണ്ടിയിലൊക്കെ പോകുവാണെങ്കിൽ പുറമേയുള്ള സൗണ്ട് ഇപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുവാണെങ്കിൽ പുറമേയുള്ള വണ്ടീൻ്റെ ഹോൺ അടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കില്ല പിന്നെ ചെവിയിൽ നിന്ന് ചില സമയത്ത് ഇടയ്ക്ക് ഇത് വീണു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ബ്ലൂടൂത്തിൻ്റെ വയ് ഹെഡ്സെറ്റ് ആണെങ്കിൽ ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ ഇയർ ബഡ് ആണെങ്കിൽ ചാടിപ്പോയിക്കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്